നമ്മുടെ ഗ്രാമങ്ങളിൽ വായ്പ്പ എടുക്കുക എന്നുള്ളത് കൂടിക്കൂടി വരുന്നൊരു കാര്യമാണ് ഇപ്പോൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ കാർഷിക ലോൺ നമ്മൾ എടുക്കാറുണ്ട് അതല്ലെങ്കിൽ വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടി അതല്ലെങ്കിൽ വീടിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലങ്കിൽ ബിസിനസ്സ് ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നിങ്ങനെ പറഞ്ഞ് പല രീതിയിലുള്ള ലോണുകൾ അതായത് വായ്പ്പകൾ നമ്മൾ ബാങ്കുകളിൽ നിന്ന് എടുക്കാറുണ്ട് അത് ഗവൺമെൻറ് ബാങ്കുകളാവാം അതല്ലാതെ പലിശയ്ക്ക് ആളുകളിൽ നിന്ന് ആകാം അല്ലെങ്കിൽ സ്വർണ്ണം പണയം വെച്ചിട്ടുള്ള വായ്പ്പകളാകാം അങ്ങനെ പല തരം വായ്പ്പകളുണ്ട് എന്നാൽ ഇതിൻ്റെ ദൂഷ്യ വശങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ലോണെടുക്കുന്ന അതേ ആവേശത്തിൽ നമുക്കിത് തിരിച്ചടയ്ക്കാൻ പറ്റില്ല കാരണം എല്ലാ ബാങ്കുകൾക്കും അവരുടേതായ ഒരു പലിശ ഉണ്ടായിരിക്കും നമ്മൾ ഈ എമൗണ്ട് എടുത്ത എമൗണ്ടിൻ്റെ കൂടെത്തന്നെ പലിശ സഹിതം തിരിച്ചടയ്ക്കുക എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പല സ്ഥലത്തും കേട്ടു വരുന്നതാണ് കർഷകർ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളത് അതായത് നമ്മൾ ഈ ഒരു എമൗണ്ട് അടക്കാൻ ശ്രമിക്കും പക്ഷെ അടക്കാൻ പറ്റാതിരിക്കുന്ന സമയത്ത് പലരും എന്ത് ചെയ്യാറുണ്ട് തിരിച്ച് ബുദ്ധിമുട്ടുന്നവരും ആത്മഹത്യയിലോട്ട് ഒക്കെ എത്താറുണ്ട്